ഹലോ ആ നമ്മള് ടൂർ പാക്കേജുമായി ബന്ധപ്പെട്ട് വന്നതായിരുന്നു ആ ഒരു ടൂർ പാക്കേജ് ടൂർ പാക്കേജുമായി ബന്ധപ്പെട്ട് വന്നതായിരുന്നു വിളിച്ചത് ഇതായിരുന്നു വന്നതായിരുന്നു ആ നമുക്ക് കേരളത്തിലില്ലിപ്പോൾ അത്യാവശ്യം തണുപ്പുള്ള സ്ഥലങ്ങളാണ് വേണ്ടിയിരുന്നത് വൺ ഡേ ട്രിപ്പ് വൺ ഡേ ട്രിപ്പടിക്കാന് പറ്റിയ വൺ ഡെ ആയാലും ടൂ ഡെ ആയാലും കുഴപ്പമില്ല എന്താ തണുപ്പ് തണുപ്പുള്ള നല്ല കാലാവസ്ഥയും ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയുള്ള ഏരിയ കേരത്തിലെവിടെ എന്ന് അറിയാമോ ആ ഹില്ലി ആരിയ അതെ അതെ അതിപ്പം എവിടെ ഒക്കെ നമുക്ക് ആ ഓക്കെ ഓക്കെ പശ്ചിമഘട്ടം ആ അതെ അതെ അപ്പം അവ് അവിടേക്ക് ഇപ്പം നമുക്കിപ്പോൾ ഒരു പാക്കേജൊക്കെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിന്റ ഒക്കെ നമുക്ക് ഒരു ദിവസം എവിടെ ഒക്കെ കാണാൻ കഴിയും ഫോക്കസ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എത്രദിവസം വേണ്ടി വരും അപ്പം നമ്മള് ആ അതെ ടി പ്ലാന്റുകൾ അല്ലെ ആ അ ആ അങ്ങനെ എന്നാൽ നമുക്ക് അവിടെ ഒക്കെ ചെന്ന് നമുക്ക് വയനാടൊ ഇടുക്കിയായിട്ട് അങ്ങോട്ടേക്ക് പോകാം ഇല്ലെ അവിടെ അവിടെ കാണ ആ അവിടെ വയനാട് അല്ലെ ഇടുക്കി ആ ഓക്കെ എന്നാൽ നമുക്ക് മ് മ് മ് ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ നമുക്ക് വയനാട് ഇടുക്കി ഇടുക്കി പോകാം ഓക്കെ ശെരി മ്